അഹ് ഓക്കേ ലോറാ റ്റെയിലറിങ്ങല്ലേ

ലോറാ റ്റെയിലറിങ്ങല്ലേ ഇത് തലപ്പുഴ ഗവണ്മെൻറ്റ് ഹൈ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് യൂണിഫോമിൻ്റെ തയ്ച്ചു കിട്ടാൻ നമ്മുടെ ആനുവൽ ടെയ്ക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു മൂന്ന് ടൈപ്പ് ഡ്രെസ്സാണ് വേണ്ടത് ഓക്കേ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ എങ്ങനെ ഒരു ഇരുന്നൂറ് സെറ്റ് വേണം

ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും വെവ്വേറെ വേണം ഓക്കേ നിങ്ങളുടെ റേറ്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് കുട്ടികളുടെ ഏജ് യു പി സ്കൂൾ പിള്ളേര് യു പി സ്കൂൾ ഉണ്ട് ഹൈ സ്കൂൾ ഉണ്ട് രണ്ടും കൂടെയാണ് അപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു നൂറ് പിള്ളേര് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മതി ചുരിദാറും പാൻറ്റും ഷർട്ടും അത് എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ

മുന്നൂറ്റി അൻപത് രൂപ ഒരു പീസ് അല്ലേ ചുരിദാറിനോ ചുരിദാറിനോ നാനൂറു രൂപ വരും അല്ലേ ഒന്ന് ബൾക്ക് ഓർഡർ അല്ലേ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ലെ ഓക്കേ എത്ര ദിവസം കൊണ്ട് എത്ര അതേ അല്ലെ എത്ര ദിവസം കൊണ്ട് തരാൻ പറ്റും ഓഹ് അങ്ങനെയാണോ ഓക്കേ എന്നാലും പരമാവധി അഡ്ജസ്റ്റ് ചെയ്യ് എത്ര ദിവസം കൊണ്ട് തരാൻ പറ്റും ഒരാഴ്ച കൊണ്ട് കിട്ടും അല്ലെ ഓക്കേ മെറ്റിരിയൽ മാത്രം നമ്മൾ തന്നാൽ പോരെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമല്ലൊ അല്ലെ ഓക്കേ ഓക്കേ ഓക്കേ പരിപാടി ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസമുണ്ട് ഓക്കേ ഓക്കേ എന്നാൽ ഈ അളവ് എങ്ങനെയാണ് നമ്മൾ അവിടെ കൊണ്ട് വന്ന് തരണോ അതല്ല നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുമോ

ഓക്കേ ഓക്കേ